ഇന്ത്യയിലെ കാലാവസ്ഥയെന്ന് പറയുമ്പോള് ഈ ഇത്രയും സ്റ്റേറ്റുകളിൽ എല്ലാ സ്റ്റേറ്റുകളിലും വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകളാണ് കാണപ്പെടുന്നത് കേരളത്തിലെ ഒരു കാലാവസ്ഥയല്ല തമിഴ്നാട്ടില് തമിഴ്നാട്ടിലെ ഒരു കാലാവസ്ഥയല്ല കര്ണ്ണാടകത്തിൽ ആ പല പിന്നെ നമ്മുടെയിപ്പം ആ തമിഴ്നാട്ടിലെ ഒരു കാലാവസ്ഥയല്ല കേരളത്തിൽ കേരളത്തിൽ പണ്ടൊക്കെ നമുക്ക് ജൂൺ ഒന്നോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് മൂന്നോട് കൂടി കാലവര്ഷം തുടങ്ങുമായിരുന്നു പടിഞ്ഞാറന് കാലവര്ഷം തുടങ്ങും അപ്പം നമ്മൾക്ക് അറിയാം സ്കൂളൊക്കെ തുറക്കുന്ന സമയം ആവുമ്പോഴേക്കും ഈ കാലവര്ഷം തുടങ്ങുന്നു അതൊരു ജൂണ് ജൂലൈ ഓഗസ്റ്റ് മാസത്തോടു കൂടി ഒരു ആ ഒരു മഴ കാലവര്ഷം നമുക്ക് തീരുന്നു അതുകഴിഞ്ഞ് സെപ്റ്റംബറിൽ ഓണം ഓണമൊക്കെ ഓണത്തിന്റെ ആ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു മഴയുണ്ട് പിന്നെ ഒരു ഒക്ടോബർ ഒരു പകുതിയോടുകൂടി തുലാവര്ഷം തുടങ്ങുന്നു അപ്പോൾ ഈ തുലാവര്ഷമെന്ന് പറയുമ്പോൾ ഉച്ചകഴിഞ്ഞിട്ട് ഉച്ചവരെ നല്ല വെയിലായിരിക്കും അതിനു ശേഷം നല്ല ഇടിയോടും കൂടി മഴ അപ്പം നേരത്തെ നമുക്ക് നേരം സന്ധ്യയാവുന്നത് പോലെ തോന്നും ഇരുണ്ടതായിരിക്കും രാവിലെയാവുമ്പോഴേക്കും അത് മാറും അങ്ങനെ ഉള്ള അതാണ് പിന്നെ ഇടയ്ക്കിടട്ക്കൊക്കെ ഒരു വേനല്മഴ ഒരു ഫെബ്രുവരി മാര്ച്ച് മാസങ്ങളിലൊക്കെ ഒരിടയ്ക്ക് ഒരു വേനല്മഴ വരാറുണ്ട് അപ്പം അങ്ങനെയായിരുന്നു പണ്ടുള്ള കാലങ്ങളിൽ ഈ നമ്മുടെ കാലാവസ്ഥ നമ്മുടെ കേരളത്തിലെ അപ്പം ഇപ്പോൾ അത് വന്ന് വന്നിട്ട് നമ്മുടെ കാലാവസ്ഥയെ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല പറ്റാത്തയൊരവസ്ഥയാണ് കാരണം ഇപ്പം ന്യൂനമര്ദ്ദം ചക്രവാതച്ചുഴി ഇങ്ങനെ പല ഇത് ഇതിപ്പം നമ്മൾക്കെന്നും മഴ മഴയില്ലാത്ത സമയങ്ങളില് പോലും ചില സമയത്ത് മഴ ചൂടായാല് ചൂട് തന്നെ നമുക്കൊന്നും പ്രവചിക്കാന് പറ്റാത്ത രീതിയിലുള്ള കാലാവസ്ഥകളാണ് നമുക്കിന്നിപ്പം ഭൂമിയുടെ ഒരു ഘടന തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം വന്നിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ കാലാവസ്ഥകളിലിങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നിമിത്തം നമുക്ക് കൃഷി കാര്യങ്ങൾ ഒക്കെ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ തമിഴ്നാട് ആന്ധ്രപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നെല്ലുല്പ്പാദിപ്പിക്കുന്നത് അപ്പം നമുക്ക് ആന്ധ്രയിലൊക്കെ ഈ നെല്ലുല്പ്പാദിപ്പിക്കാന് അതിനനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ കിട്ടിയില്ല എങ്കിൽ ഇപ്പം അവിടെ ആ കൃഷിയൊക്കെ ബുദ്ധിമുട്ടിലാവും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് നമുക്ക് പച്ചക്കറികൾ വരുന്നത് അവിടുത്തെ അവിടെ ആവിശ്യമായിട്ടുള്ള മഴകൾ ഒക്കെ കിട്ടിയില്ലയെന്ന് വരികിൽ നമുക്ക് പച്ചക്കറി അവരുടെ ആ പച്ചക്കറി കൃഷികളൊക്കെ വളരെയധികം മോശമായിട്ട് വന്നിട്ട് അതിന് അതിന്റെയൊരു പരിണിതഫലം വരുന്നത് കേരളത്തിനാണ് എന്നാൽ അവിടെ നിന്ന് പച്ചക്കറികൾ വന്നാണ് നമ്മളുപയോഗിക്കുന്നത് അപ്പം നമ്മൾക്കിവിടെ അപ്പഴത്തേക്കും പച്ചക്കറിക്ക് ഭയങ്കരമായിട്ടുള്ള വില കൂടും വില കൂടി പച്ചക്കറികൾ ചിലത് കിട്ടാനില്ലാതാവും ചിലതിന് ഭയങ്കരം വിലയായിരിക്കും അപ്പം അങ്ങനെയുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പല വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഓര്ക്കാപ്പുറത്താണ് നമുക്കിന്നിപ്പം മഴ കിട്ടുന്നത് അന്നേരം അതിഭയങ്കരമായ മഴ വെള്ളപ്പൊക്കം പിന്നെ രണ്ടായിരത്തിപ്പതിനെട്ടിലെ വെള്ളപ്പൊക്കമൊക്കെയെന്നു പറഞ്ഞാല് നമ്മൾക്കൊരു പ്രവചിക്കാന് പറ്റാത്ത ഒരു വെള്ളപ്പൊക്കമായിരുന്നു അത് ഭയങ്കരമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കവും കാര്യങ്ങളും എല്ലാമായിട്ട് അത് വന്നു അപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ അതായത് ന്യൂനമര്ദ്ദം ചക്രവാതച്ചുഴി ഭൂമികുലുക്കം ഭൂകമ്പം പിന്നെ ഉരുള്പൊട്ടൽ ഇതെക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അത് നമ്മുടെ കൃഷികളെയും ഒക്കെ ആളുകളെയൊക്കെ ഒരുപാട് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പം അത് നിമിത്തം പല പല അസുഖങ്ങൾ ഇപ്പം നമ്മുടെ കൃഷികൾ നശിക്കുന്നത് മാത്രമല്ല ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തമ്മിൽ നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ അസുഖങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്